ഹലോ ആ പറഞ്ഞോളൂ ബ്രോക്കറാണല്ലോ ആരാണ് വീടും സ്ഥലവുമായിട്ട് വേണമല്ലേ ആ എവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണോ വേണ്ടത്

ടൗണിൽ തന്നെ വേണോ ടൗണിൽ കിട്ടണമല്ലേ ആ ഓ ശരി അപ്പം എ എത്ര സെൻറ്റൊക്കെയാവും നോക്കുന്നത് എന്തോ സെൻറ്റിനിപ്പോൾ രണ്ടര മൂന്നൊക്കെ വരുന്നുണ്ട് ടൗണിലാവുമ്പോഴത്തേക്കും ചെറിയ കൂടുതലാണ് നമുക്കറിയാലോ അപ്പോൾ ടൗണിൽ ടൗണിലാവുമ്പോഴത്തേക്കും ചിലപ്പം മൂന്നര വരെയൊക്കെ പോകാനുള്ള ചാൻസുണ്ട് ആ മൂന്നര ലക്ഷം വരെ പോവാൻ ചാൻസൊണ്ട് പിന്നെ വീട് വീടിൻ്റെ അപ്പം എക്സ്ട്രാ വരുമേ സ്ഥലത്തിൻ്റെ സ്ഥലം മാത്രമായിട്ടാണെങ്കിൽ കുറവുണ്ട് വീട് വരുമ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ എക്സ്ട്രാ വരും ആ വീട് എങ്ങനെയാണ് നോക്കുന്നത് പിന്നെ ഒരു നില വീടാണോ അതോ ഒരു നില ഒരു മൂന്ന് ബെഡ് റൂമൊക്കെ മതിയാവോ ഓക്കെ മൂന്ന് ബെഡ് റൂമും ആ നമുക്കൊരു പത്ത് പന്ത്രണ്ട് പത്ത് സെൻറ്റിൻ്റെ പന്ത്രണ്ട് സെൻറ്റിൻ്റെയൊക്കെ പ്ലോട്ടുകൾ നമുക്ക് കിടപ്പുണ്ട് ആലപ്പുഴയിൽ ടൗണിനടുത്തായിട്ടൊക്കെയുണ്ട് ടൗണിൽ തന്നേന്ന് പറയാൻ പറ്റില്ല ടൗണീന്നൊരു അഞ്ച് കിലോമീറ്ററൊക്കെ മാറി അത് കുഴപ്പമില്ലല്ലോ ആ അപ്പം അതാവുമ്പം സ്കൂളും ഹോസ്പിറ്റലുവൊക്കെ അടുത്തൊക്കെത്തന്നെ ഉണ്ട് ആ അത് അത്യാവശ്യവാണല്ലോ എങ്ങനെയാണ് അത് ഫാമിലിയായിട്ട് താമസിക്കാനാണോ അതേല്ലെ ആ ഓക്കെ അപ്പം ആ അപ്പം ഞാനീ രണ്ട് പ്ലോട്ട് കാണിക്കാം ഏ അപ്പം രണ്ട് പ്ലോട്ടിലും ഇതുപോലെ തന്നെ മൂന്ന് ബെഡ് റൂമിൻ്റെയും വീടുകളാണ് ഉള്ളത് അപ്പം ഒന്ന് ഒരു ദിവസം ഇറങ്ങാൻ പറ്റുമോ കാണാനായിട്ട് നമുക്ക് നോക്കാവേ നിങ്ങൾ ആദ്യം സ്ഥലം കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിലെ നമുക്ക് അതിനനുസരിച്ച് നോക്കാം അപ്പമൊരു ദിവസം ഇറങ്ങാൻ പറ്റുമോ എന്തോ ആ അപ്പം മൂന്ന് മൂന്നര വീടും സ്ഥലവും കൂടെ മൂന്നരയ്ക്ക് ഒപ്പിക്കാം പറ്റോന്ന് ഞാൻ നോക്കട്ടെ അല്ലെങ്കിൽ സ്ഥലം മാത്രവായിട്ടാണ് നമ്മൾ സാധാരണ മൂന്നരയ്ക്ക് കൊടുക്കുന്നത് മൂന്നര ലക്ഷത്തിന് വീടും സ്ഥലവും കൂടെ സെൻറ്റിന് മൂന്നര ലക്ഷത്തിന് കിട്ടുവോന്ന് ഞാനൊന്ന് നോക്കട്ടെ ഏ ആ ആ പറ്റുവാണെങ്കിൽ ഞാൻ നോക്കീട്ട് പറയാം അപ്പം അടുത്തയാഴ്ചത്തേക്കൊരു ദിവസം വരണം കാണാൻ ആ എന്ന് വരും തിങ്കളാഴ്ച വരുവോ തിങ്കളാഴ്ച ആ അപ്പോൾ ശരിയെ അന്നേരം കൂടുതൽ കാര്യങ്ങളൊക്കെ അന്നേരത്തേക്കും പറഞ്ഞു തരാം ആ ശരി